ഗെയിമുകളുടെ ആർട്ടിഫിഷ്യൽ ഇൻറ്റലിജൻസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗെയിമുകളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻറ്റലിജൻസിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഇപ്പോൾ ഗെയിമല്ല എല്ലാ കാര്യവും ഇപ്പോൾ അങ്ങനെയാണ് വരുന്നത് അത് കൊണ്ട് തന്നെ ഇപ്പം ടി വിയിൽ ഒക്കെ പറയുന്നതു കേൾക്കാം ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻറ്റലിജൻസ് വന്നിട്ടുണ്ടെങ്കിൽ എത്രയോ ഡോളർ ആൾക്കാരുടെ പണി പിന്നെ പണിയില്ലാതെയാകും അപ്പം അങ്ങനത്തെ വല്ല പ്രശ്നങ്ങൾ ആകുന്നേ ഇപ്പം ഇനി ഇപ്പോൾ ഉള്ള കാലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻറ്റലിജൻസ് അഥവാ എ ഐൻ്റെ കാലഘട്ടമാണ് അപ്പോൾ ഗെയിംസിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പല ഗെയിമുകൾ ആണെങ്കിലും കൂടുതലും അതായത് നമുക്ക് സംസാരിച്ച് ഇപ്പം സംസാരിച്ചതുകൊണ്ട് നമുക്ക് ഗെയിം കളിക്കാനും അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം അതൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻറ്റലിജൻസ് ഇപ്പോൾ നമ്മൾ മറ്റേ പബ് ജി പബ് ജി വേറെ എന്തെങ്കിലും കുറേ ഗെയിമുകൾ ഉണ്ടല്ലോ ഇപ്പോൾ ഫോണിലൊക്കെ അപ്പം ആ ഗെയിമുകളിൽ ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് നമ്മൾ സംസാരിച്ചതുകൊണ്ടാണ് ഇപ്പം നമ്മളുടെ കളിക്കുന്നവരുമായിട്ട് നമ്മൾ സംസാരിച്ച് കൊണ്ട് നമ്മൾ ഗെയിം കളിക്കും അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗെയിമിൽ തന്നെ രണ്ട് ഇത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം ആർട്ടിഫിൽ ആർട്ടിഫിഷ്യൽ ഇൻറ്റലിജൻസിൻ്റെ ബ്രില്ലിയൻസിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ നമുക്ക് ഗെയിം കളിക്കാൻ പറ്റുന്നത്